ഹലോ

അതെ അതെ

എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത് ചാപ്പാത്തിയും ചിക്കൻ കറിയും ആണ് അത് ചപ്പാത്തി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ മാവ് കുഴച്ച് വെക്കുക നല്ല രീതിയിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം അല്ലെ മൂടിവെക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ സാധാ ഉണ്ടാക്കുന്നതുപോലെത്തന്നെ ചപ്പാത്തി ഉരുട്ടി അത് പരത്തി നമ്മൾ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട്

കുരുമുളകും മസാലപ്പൊടിയും എല്ലാംകൂടെ ഈ മിക്സ്സ് ചെയ്ത് നല്ലപോലെ അരച്ച് മിക്സ് ചെയ്ത് കുറച്ച് സമയം അത് വെച്ചിട്ട് നല്ലപോലെ എണ്ണയിൽ ഒഴിച്ചിട്ട്

അങ്ങനെ ആവശ്യത്തിന് അത് ഒരു പാകമായി ഒരു റെഡ്ഡിഷ് കളറായിട്ട് വരുമ്പഴത്തേന് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും മുളകുപൊടിയും അതുപോലെത്തന്നെ ഗരം മസാല എന്നിവയക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ വഴണ്ട് തക്കാളി അത് മസ്റ്റ് ആണ് അങ്ങനെ അതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് നമ്മളത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്കിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ആകിയിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കാറ് അത് വളരെ നല്ല ടേസ്റ്റിയാണ് എന്റെ മക്കൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണത് എന്നും ഉണ്ടാക്കിക്കൊടുത്താലും അവരത് കഴിച്ചോളും അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതലായിട്ടത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്